ഹലോ ആ പറഞ്ഞുകൊള്ളൂ അതെയോ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഒരാഴ്ചയായി എങ്ങനെയാണ് അണപ്പല്ലിനാണോ അല്ലെങ്കില് ഫ്രണ്ടിലെ പല്ലിനോ അണപ്പല്ലിനാണ് ആ ആ അവിടെ എവിടെയെങ്കിലും കാണിച്ചായിരുന്നുവോ അതെയോ ആ ആ ഹാ അവിടെ വേറെയെവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നുവോ അതെയോ ആ ഹാ അ വേദനയുണ്ടല്ലേ അഹ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ എങ്ങനെയാണ് രാത്രിയും രാവിലെയും ബ്രെഷ് ചെയ്യാറുണ്ടോ മധുരം കഴിക്കുന്നതൊക്കെ കൂടുതലാണോ മധുരം കഴിക്കുന്നത് കുറവാണല്ലേ ആ ഹാ ഹാ ആ തണുത്തത് കഴിക്കുമ്പോള് കുത്തുന്നതുപോലെ വേദനയുണ്ടോ ആ ഹാ ഹാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അങ്ങനെയാണെങ്കില് ഒരു ദിവസമൊന്ന് ക്ലിനിക്കിലേക്ക് വരണം ഏ വന്നുകഴിഞ്ഞിട്ട് അത് നോക്കണമൊന്ന് നോക്കിയാലേ അത് അറിയുകയുള്ളൂ എന്താണെന്ന് കാരണം ഇപ്പോഴേ നോക്കിയിട്ടില്ലെങ്കില് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ആ സൈഡിലുള്ള പല്ലിലേക്കൊക്കെയാകും അപ്പോള്പ്പിന്നെ കൂടുതല് ബുദ്ധിമുട്ടാകും മ് അപ്പോള് അത് ഇവിടെനിന്ന് ഞാനൊരു ബുക്കിങ് നമ്പര് പറഞ്ഞുതരും ആ നമ്പറിലേക്കൊന്ന് വിളിച്ചിട്ട് ഇവിടുത്തെ ചീട്ടില്ലേ കയ്യില് ആ അതിൻറ്റെ താഴെ ബുക്കിങ് നമ്പറുണ്ട് ബുക്ക് ചെയ്യേണ്ട സമയവും എഴുതിയിട്ടുണ്ട് അതിലേക്ക് അതില് വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തിട്ട് വെളളിയാഴ്ചയൊഴികെ ബാക്കി നാല് ദിവസവുമുണ്ട് വെള്ളി ശനി ഞായറുമില്ല തിങ്കള് മുതല് വ്യാഴം വരെയുണ്ട് അപ്പോള് അതില് സമയം എഴുതിയിട്ടുണ്ട് ആ സമയം നോക്കിയിട്ട് വിളിക്കുക വിളിച്ചിട്ടൊരു ദിവസം വരണം കാരണം ഒന്ന് നോക്കണം നോക്കിയിട്ടേ അതെന്താണെന്ന് പറയാന് പറ്റുകയുള്ളൂ പറിക്കണോ അല്ലെങ്കില് ചെറിയ എന്തെങ്കിലും മരുന്ന് വെച്ചാല് മതിയോ എന്നറിയണമെങ്കില് ആ അപ്പോള് അത് നോക്കിയിട്ട് ഒന്ന് ബുക്ക് ചെയ്തിട്ട് സമയംപോലെ നിങ്ങള് ബുക്ക് ചെയ്യുക എന്നിട്ട് വരിക കേട്ടോ അത് പിന്നെ രണ്ട് നേരം ബ്രഷ് ചെയ്യണം ഒരുപാട് മധുരവും തണുത്തതുള്ളതൊന്നും കഴിക്കേണ്ട തണുത്തതൊക്കെയാണെങ്കില് കുറച്ചുനേരം എടുത്ത് പുറത്തുവെച്ചിട്ട് നല്ലവണ്ണം തണുപ്പ് മാറിയിട്ട് കഴിച്ചാല് മതി കേട്ടോ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കില് ബുക്ക് ചെയ്തിട്ട് ഒരു ദിവസം വാ കേട്ടോ നമുക്ക് നോക്കിയിട്ടെന്താണെന്നുവെച്ചാല് ചെയ്യാം ഓ ഓക്കേ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആഹ് ആ